ഞാൻ ഇപ്പം ആമസോണിൽ നിന്നാണെങ്കിലൊരു ഏ സി മേടിച്ചു കേട്ടോ പഴയ ഏ സിക്കാണെങ്കിൽ കൂളിംങ്ങ് ഇല്ലായിരുന്നു പക്ഷെ ഈ ആമസോണിൽ നിന്നു മേടിച്ച ഏ സിക്ക് നമുക്ക് വിചാരിക്കുന്ന അത്രയും എമൗണ്ടും ആയില്ല എന്നാൽ സാധാരണക്കാർക്ക് ഒതുങ്ങിയ രീതിയിലുള്ള എമൗണ്ട് ആയിരുന്നു അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു ആമസോണിൽ നിന്നാണ് നമ്മൾ മേടിച്ചത് ഏ സിക്ക് ആണെങ്കിലും ഞങ്ങളുടെ ഒരു ബെഡ് റുമെന്നു വെച്ചാൽ കൂട്ടുകുടുംബം ആയതു കൊണ്ട് ഒരു കുറച്ചു വലിപ്പമുള്ളതാണ് പക്ഷെ നമുക്ക് ആ റൂമിലേക്കെല്ലാം നല്ല കൂളിംങ്ങ് ലഭിക്കുന്നുണ്ട് കേട്ടോ കുറച്ചു നേരം നമ്മൾ ഓൺ ആക്കി ഇട്ടു കൊണ്ടു കുറച്ച് ഒത്തിരി സമയം അങ്ങനെ ഇട്ടിട്ടില്ലായിരുന്നു ഇതിൽ നല്ല കൂളിംങ്ങുണ്ട് നമുക്ക് കറൻ്റ് ബില്ലായാലും ഓവറായിട്ട് ആകുന്നില്ല നമുക്ക് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരാശ്വാസമാണ് നല്ല പ്രോഡക്റ്റാണ് കേട്ടോ അതു കുറഞ്ഞെമൗണ്ടിൽ നമുക്കു നമ്മുടെ വീട്ടിലാവശ്യത്തിനുള്ള നല്ലൊരു ഒരു ഉപകരണമായിട്ടു ഞങ്ങൾക്കത് മാറിയിരിക്കയാണ് ഈ ചൂടുള്ള സമയത്ത് അറിയാമല്ലോ അത്യാവശ്യമാണ് ഒരേസി എന്നു പറയുന്നത് സാധനം അത് നല്ല വണ്ണം നമുക്ക് ഉപയോഗിക്കാൻ ഒക്കുന്നുണ്ട് ആമസോണിൽ നിന്നു നിങ്ങൾ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞെമൗണ്ടിൽ നല്ല പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യൂ